ഹലോ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ പ്രീ ഓർഡർ ഭക്ഷണ സേവന ഓപ്ഷനുകളെ കുറിച്ചു അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കാരണം അതിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് വരുന്നത് എന്ന് അറിയുവാനായിരുന്നു എങ്കിൽ എനിക്ക് അത് മുൻകൂട്ടി താങ്കൾക്ക് ഓർഡർ നൽകാമായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള വഴി ഉണ്ടോ അതോ ഡയറക്റ്റ് മാത്രമേ താങ്കൾ ഭക്ഷണം ഓർഡർ ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുണ്ടോ എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നു പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിന് മുമ്പായി ഓർഡർ നൽകണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ താങ്കളുടെ താങ്കുടെ ഫ്ലൈറ്റിലെ ഡീറ്റെയിൽസ് പ്രീ ഓർഡർ ഭക്ഷണം സേവന ഓപ്ഷനുകളെ കുറിച്ചു എനിക്ക് ഒരു മുൻകൂട്ടിയുള്ള ഡീറ്റെയിൽസ് തരാമെങ്കിൽ എനിക്ക് മുൻകൂട്ടി അത് ഓർഡർ ചെയ്യാമായിരുന്നു